ഞാൻ കഴിഞ്ഞ ആഴ്ച ഓൺലൈൻ ആമസോണിൽ നിന്നൊരു ഒരു ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഞാൻ ഏട്ടാന്തിയാണ് അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് അവർ ബുക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് പത്ത് ഒൻപത് പത്താന്തി രാവിലെ അല്ലെങ്കിൽ ഉച്ചയൊക്കെ ആകുമ്പോൾ എത്തും എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ആ ആയിക്കോട്ടെ അത് കുഴപ്പമില്ലാത്തതായിരുന്നു എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ കറക്റ്റ് ടൈമിൽ തന്നെ അവർ പത്താന്തി പറഞ്ഞ് ഒൻപതാന്തി നമ്മൾ സാധനം കൈയ്യിൽ കിട്ടി നല്ല പാക്കിങ്ങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടുത്തന്നെ എനിക്ക് അവർ ഗിഫ്റ്റ് റാപ് ചെയ്തിട്ടാണ് കൊണ്ടുവന്ന് തന്നത് അപ്പം ഗിഫ്റ്റ് റാപ് ചെയ്യേണ്ട ആവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല കറക്റ്റ് സമയത്ത് തന്നെ കൈയിൽ കിട്ടിയത് കൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് അത് ആ ഗിഫ്റ്റ് കൊടുക്കാനും പറ്റി എനിക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു പിന്നെ അതിൻ്റെ വരുമ്പോൾ തന്നെ അതിന് ഡെലിവറി സമയത്ത് വലിയ കുഴപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല സാധാരണ പറ്റുന്നതു പോലെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരി മറ്റേ ഡെലിവറി ആ ആളും നല്ല ഇതായിരുന്നു കറക്റ്റ് സമയത്ത് വന്ന് നമ്മൾ വിളിക്കുമ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആൾ കുറച്ച് നേരം വെയിറ്റ് ചെയുകയൊക്കെ ചെയ്തു എന്തായാലും നല്ലൊരു റിവ്യൂ ആണ് എനിക്ക് പറയാൻ ഉള്ളത് അതിൽ